കോവിഡ് നയൻ്റീൻ മഹാമാരിയുടെ പശ്ചാത്തലത്തിലൊക്കെ നിലവിലെ കേരളത്തിലെ വിദ്യാഭ്യാസ അതായത് മേഖല ആ ടൈമിലൊക്കെ നേരിട്ട വെല്ലുവിളികൾ ഭയങ്കരം ആണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ പെട്ടെന്ന് ഇപ്പം നമ്മൾ ക്ലാസിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ പെട്ടെന്ന് നമുക്ക് ഓൺലൈനിൽ ഇരുത്തി പഠിപ്പിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാ കുട്ടികളും ശ്രദ്ധിക്കണം എന്ന് ഇല്ല പിന്നെ ടീച്ചർമാർക്ക് ആണെങ്കിൽ എല്ലാ കുട്ടികളെ ഒരുമിച്ച് ശ്രദ്ധിച്ചിട്ട് ക്ലാസ് എടുക്കാനും പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ക്ലാസ് ആണല്ലോ ഇപ്പോൾ എല്ലാ കുട്ടികളെയും നോക്കികൊണ്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും പിന്നെ എന്ന് വെച്ചിട്ടുങ്കിൽ വാക്സിൻ വിതരണം അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് ഒക്കെ ഭയങ്കര വെല്ലുവിളി ഒക്കെ ആണ് നേരിട്ടു കൊണ്ട് ഇരുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠനത്തിൽ നഷ്ടം എങ്ങനെ പോയിട്ട് ഉണ്ടെങ്കിലും ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന പോലെ എന്തായാലും നമുക്ക് ഓൺലൈനിൽ നടക്കില്ല നമ്മളാ ടൈമിൽ അതായത് കുട്ടികൾ ആണെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകും ശരിക്കും പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ആ ഒരു ടൈം അതായത് കൊറോണ കാലത്ത് കുട്ടികൾ ഒരുപാട് ഒരുപാട് പേർ അതായത് നാശമായത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോൺ കൊടുക്കും പഠിക്കാൻ ആണല്ലോ എന്ന് വെച്ച് മാതാപിതാക്കൾ ഫോൺ കൊടുക്കും കുട്ടികൾ വേറെ എന്തെങ്കിലും കണ്ടിരിക്കുകയോ കോൾ ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും പഠിക്കില്ല അപ്പം മാതാപിതാക്കൾ വിചാരിക്കും പഠിക്കും എന്ന് അങ്ങനെ ഉള്ള ഒരുപാട് കുട്ടികളുടെ പഠനവും കാര്യങ്ങളും ഒക്കെ നഷ്ടമായിട്ടുണ്ട്